ഹലോ നിങ്ങളുടെ റസ്റ്റോറന്റിലേക്കൊരു സാ ഒരു ഭക്ഷണം ഓഡർ ചെയ്യാൻ വേണ്ടി വിളിക്കയാണ് എന്നെ നിങ്ങളുടെ റസ്റ്റോറൻ്റിനു ഭക്ഷണങ്ങളെല്ലാം നല്ലതാണെന്നുള്ള മറ്റുള്ളവരുടെ അഭിപ്രായം നമുക്ക് കിട്ടി അപ്പം നമുക്ക് മസാലദോശ വേണം വേണം അതിനു നമ്മൾ ഓഡർ ചെയ്തു ചെയ്യുവാണെ അപ്പം നമ്മളെ വീട്ടിലേക്ക് ഒരു കുറെ കുറേ പേർ ഗസ്റ്റുകൾ വരുന്നുണ്ട് അപ്പോൾ അവർക്കു വേണ്ടിയുള്ളതാണ് മസാലദോശ വേണം അപ്പോൾ അതിനു തക്ക അതിൻ്റെ ഉള്ള സാ ചേരുന്ന സാധനങ്ങളെല്ലാം ഉൾപ്പെടെ മസാലദോശ ഉൾ മന്നെ നമുക്ക് ഇവിടെ എത്തിച്ചു തരണം അപ്പം നിങ്ങൾ കൊണ്ടു തരുന്നതും നമ്മുടെ ഡെലിവറിയെല്ലാം നല്ല കൃത്യം കൃത്യമായിട്ട് ചെയ്യുന്നതാണെന്നുള്ള അഭിപ്രായമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതു നമ്മൾ പലരോടന്വേഷിച്ചു പലകടകളിലന്വേഷിച്ചു അപ്പോൾ നിങ്ങളുടെ കടയാണ് ഏറ്റവും നന്നായിട്ട് ഡെലിവറിയൊക്കെ ചെയ്യാം നമ്മൾ പറയുന്ന സമയത്തിനു നമുക്ക് കൊണ്ടു തരികയും എടുക്കുകയൊക്കെ ചെയ്യുന്നതെന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ട് നമുക്ക് നിങ്ങളുടെ കട തന്നെയാണ് നമുക്കോഡർ ചെയ്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഭക്ഷണങ്ങളെല്ലാം അതിലും നല്ല ടേസ്റ്റാണ് എന്നെ ഫുഡ് ഓഡർ ചെയ്തു നമ്മൾ പറയുന്ന ആ ഫുഡ്ഡിനനുസരിച്ചു തന്നെ നമുക്ക് എല്ലാം കിട്ടുകയും കൃത്യമായിട്ട് നമ്മളാ വീട്ടിൽക്കൊണ്ടെത്തിച്ച് തരികയും നി ഇന്ന സമയം എത്ര സമയം എന്നു പറഞ്ഞാലാസമയത്തിനു തന്നെ നമ്മളെ വീട്ടിക്കൊണ്ടവർ എത്തിച്ചു തരുമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് പലരുടെ കൈയ്യിൽ നിന്നു നമുക്ക് അഭിപ്രായങ്ങൾ കിട്ടിയതു കൊണ്ട് നമുക്കതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റി അപ്പം ഈ ഗസ്റ്റുകൾ കൊടുക്കത്തക്ക രീതിയിൽ നിന്ന് ഇന്ന് രാത്രിയിൽ രാം ഒരു ഏഴരക്ക് മുമ്പായിട്ടു തന്നെ നമുക്കത് വീട്ടിലെത്തിച്ചു തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നതപ്പോത് നമുക്കേഴരക്ക് മുൻ മുമ്പായിട്ടു തന്നെ നമുക്കു വീട്ടിലത് എത്തിച്ചുതരണം പത്തിരുപത് പേർക്കുള്ളതു വേണം അപ്പോൾ എല്ലാവർക്കും തന്നെ മസാലദോശയാണ് താത്പര്യം മസാലദോശ തന്നെ എല്ലാവർക്കും തന്നെ എത്തിച്ച് എത്തി കൊണ്ടു തരണം അപ്പോഴതിൻ്റെ റേറ്റും കാര്യങ്ങളുമൊക്കെ മറ്റുള്ള കടകളെക്കാട്ടിലും ഇച്ചിരി ചാർജ് കുറവാണെന്നാണ് അറിവ് അപ്പം റേറ്റും കാര്യങ്ങളൊക്കെ എത്രയാണെന്നുള്ളത് അവിടെ ഓൺലൈൻ വഴിക്ക് നമുക്ക് ഓർഡർ ചെയ്യൂല്ലെ അപ്പോൾ ഓൺലൈൻ വഴി തന്നെ നമ്മൾ പൈസ അമ അടയ്ക്കുവൊ അല്ലെങ്കിൽ അതെങ്ങനെയാണെന്നു വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി അതനുസരിച്ചു നമ്മൾ ചെയ്തോളാം അതനുസരിച്ച് നമുക്ക് മുന്നോട്ടു പോകാൻ നിങ്ങളുടെ ആഹാരസാധനങ്ങളെല്ലാം ഏറ്റവും തൃപ്തികരമായ രീതിയിലാണ് എല്ലാവരുടെയും അഭിപ്രായം അതുകൊണ്ടാണ് ഏറ്റവും തൃപ്തികരമായ രീതിയിൽ ഞങ്ങൾക്കും ഞങ്ങളാഗ്രഹിച്ച രീതിയിൽ ഞങ്ങൾക്കുമുണ്ട് ആഹാരം കൊണ്ട് തരികയും തരണം തെ രാത്രിയിലേഴരയ്ക്ക് മുമ്പായിട്ടു തന്നെ നമുക്കതെല്ലാം കൊണ്ട് എത്തിച്ചു തരികയും ചെയ്യണം അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എത്രയാണെന്നുള്ളത് വെച്ചാൽ പറയണം അതനുസരിച്ച് നമ്മൾ അങ്ങോട്ടു പൈസ റേറ്റൊക്കെ തരുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ രുചി വ്ത് അതൊക്കെ അറിഞ്ഞിട്ടു വേണം നമുക്കടുത്തേനും ഓഡർ ഉടൻ തന്നെ നമുക്ക് വേറെ സ് ന്നെ ഫംങ്ഷൻ വരുന്നുണ്ട് അപ്പോൾ അതും ഫുൾ ഓഡർ നിങ്ങൾക്കു തന്നെ തരണമെന്നുള്ളാഗ്രഹമുണ്ട് അപ്പോൾ ഇതിൻ്റെ ടേസ് സ്വാദൊക്കെ എങ്ങനാന്നൊക്കെ ഉള്ളതൊക്കെ നോക്കീയിട്ടു വേണം അതു തരാനായിട്ട് അപ്പോൾ അതുകൊണ്ട് എത്രയും എത്രയും രുചികരമായ രീതിയിൽ ഞങ്ങൾക്ക് അതെല്ലാം പാചകം ചെയ്തു തരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാം പാചകം ചെയ്തു തരണം അപ്പം ഇറച്ചിയും മീനും കഴിക്കാത്ത ഒക്കെ ആൾക്കാരുണ്ടല്ലൊ അതുകൊണ്ടാണ് നമ്മൾ മസാല ദോശ തന്നെ നമ്മൾ ഓഡർ ചെയ്തത് അല്ലായിരുന്നെങ്കിൽ നമ്മൾ ചിക്കൻ ബിരിയാണി തന്നെ ഓഡർ ചെയ്തേനെ ഇപ്പം ഇനി അടുത്തതിന് നമുക്ക് ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ മനസ്സിലുദ്ദേശിച്ചിരിക്കുന്നത് ആ ചിക്കൻ ബിരിയാണിതന്നെ നമുക്ക് ഇന്നിപ്പം നമുക്ക് ചെയ്താക്കാം അപ്പോൾ ഇപ്പം നമുക്ക് തത്ക്കാലം മസാലദോശ മതി ആ മസാലദോശ ഏഴരയ്ക്ക് മുമ്പായിട്ട് നമ്മളുടെ വീട്ടിൽ എത്തിച്ചു തരണമെന്നു പറയുന്നു